ഹലോ ആഹ്

ആ പറഞ്ഞോ

ആ മരുന്ന് എന്തെങ്കിലും കഴിച്ചായിരുന്നോ

ആ മരുന്നിന് ഹോസ്പിറ്റൽ മറ്റും പോയായിരുന്നോ ആ വീട്ടിൽ നിന്ന് തന്നെ കുളിച്ചതാ അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോയപ്പോഴാണോ ആ എന്നാൽ മഴയത്ത് കുളിച്ചതിൻ്റെ ആയിരിക്കും വേറെ തൊണ്ടവേദനയോ ശബ്ദം അടഞ്ഞ പോലെയോ

ആ ആ അങ്ങനെ ആണെങ്കിൽ വേറെ മരുന്ന് കുടിക്കേണ്ട ചുക്ക് കാപ്പി കുടിച്ച് നോക്ക് പിന്നെ നല്ലവണ്ണം ഇടവിട്ട് ഇടവിട്ട് ആവി പിടിക്ക് തുളസിയില ഒക്കെ ഇട്ടിട്ട് ആവി പിടിച്ച് നോക്ക് ആ വിക്ക്സ് ഇടേണ്ട തുളസി ഇട്ടിട്ട് ആവി പിടിച്ചാൽ മതി

ആ പാൽ കുടിക്കുന്നത് കൊണ്ട് കുപ്പി മരുന്ന് ഒന്നും കുടിക്കുന്നത് ചിലപ്പോൾ കുട്ടിക്ക് ബാധിക്കും അപ്പോൾ ആവി പിടിച്ചോ ചുക്ക് കാപ്പി ഒക്കെ കുടിക്കുകയാണെങ്കിൽ തൊണ്ടയ് ക്ക് ലേശം ഇത് ഉണ്ടാവും ആശ്വാസം കിട്ടും വേറെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോ

ആ പാരാസെറ്റമോൾ തന്നെ കുടിച്ചാൽ മതി ആ പിന്നെ വീട്ടിൽ വേറെ ആർക്കും പകരുന്ന പോലെ ഒന്നുമില്ലല്ലോ വേറെ ഇതൊന്നും കുഴപ്പങ്ങൾ ഒന്നുമില്ലല്ലോ തലവേദനയോ കണ്ണടയ്ക്കുമ്പോ വേദനയോ ഇല്ലേൽ കുനിയുമ്പോൾ

എന്നാൽ അങ്ങനെ ചെയ്താ മതി ഇടയ്ക്കിടക്ക് ആവി പിടിച്ച് നോക്കുക ചുക്ക് കാപ്പി കുടിച്ച് നോക്ക് ആ എന്നാൽ ശരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്ക് ആയിക്കോട്ടെ